പൂന്തോട്ട പരിപാലനം അതിനെ ചെടിയെ സുസ്ഥിരമായ രീതികളും രീതികളെ എങ്ങനെയാണ് സംയോജിപ്പിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ പൂന്തോട്ടക്കനാ പൂന്തോട്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓ ഒന്നും രണ്ടും പൂക്കൾ മാത്രല്ല ഒരുപാട് തരം പൂക്കളുണ്ടാകും ഒരുപാട് തരം പൂക്കളെന്ന് പറഞ്ഞാൽ തന്നെയാണ് പൂന്തോട്ടം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പൂന്തോട്ടമുള്ള വീടുകളൊക്കെ കുറവായിരുന്നു എന്നാൽ ഇപ്പം കൂടുതലാണ് ഈ ആദ്യകാലത്തൊക്കെ കുറവായിരുന്നു എന്നാൽ ഈ കാലത്തൊക്കെ കൂടുതലാണ് ഉള്ളത് എല്ലാവരും ഇപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും വീട്ടിലാണെങ്കിലും പിന്നെ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാകും നമുക്കിപ്പോൾ പൂക്കൾ കാണണമെങ്കിൽ വേറെ പിന്നെ പൂക്കളൊക്കെ നടുന്ന സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരുടെ വീട്ട് മുറ്റത്തും ഉണ്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ അയൽവക്കത്തെ വീടുകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം പൂന്തോട്ടങ്ങൾ ഒരുപാട് പൂക്കളും അതിൽ തേൻ കുടിക്കാൻ വരുന്ന പൂമ്പാറ്റകളാണെങ്കിൽ തന്നെ തുമ്പികളാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ് ഒരു ഒന്നും രണ്ടും ചെടികൾ മാത്രമല്ല ഒരുപാട് ചെടികളുള്ളതിനെയാണ് പൂന്തോട്ടം എന്നൊക്കെ പറയുന്നത്